മലയാളം എന്ന ഭാഷ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് എല്ലാവരും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഇങ്ക്ളീഷ് മീഡിയത്തിലോട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മലയാളമെന്ന ഭാഷ നമ്മുടെ ഈ കേരളമെന്ന ഈ കൊച്ചു ജില്ല സംസ്ഥാനത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മലയാളത്തെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കണം മലയാളമില്ലെങ്കിൽ മലയാളം വേണം മലയാളം പഠിക്കാതിരുന്നാൽ യാതൊരു രക്ഷയുമില്ല മലയാളം ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു ഭാഷയല്ല മലയാളത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് എത്ര ഇങ്ക്ളീഷ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവരെ മലയാളം നമ്മൾ പഠിപ്പിക്കണം മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുകയും വേണം നമ്മുടെ പൂർവ്വീകരൊക്കെ ആണെ പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസങ്ങളായിരുന്നു അതും മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഗുരുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന മലയാള ഭാഷ നമ്മൾ നമ്മുടെ പൂർവീകർ പഠിച്ച് ആ ഭാഷ നമ്മളിലേക്ക് നമ്മുടെ ഈ തലമുറയിലേക്ക് വന്ന് ഇന്ന് ഇപ്പം ന്യൂ ജെനറേഷൻ ആയതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ ഇങ്ക്ളീഷ് മീഡിയങ്ങളിൽ വിട്ടിട്ട് വീട്ടിൽ പോലും ഇങ്ക്ളീഷ് സംസാരിക്കേണ്ട ഒരു രീതി രീതിയിലേക്കാണ് മാതാപിതാക്കൾ വന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ മലയാളം പഠിപ്പിച്ച് നമ്മുടെ പൂർവ്വീകർ നമ്മുടെ ഗുരുക്കന്മാർ ഗുരുമുഖത്ത് നിന്ന് വന്ന ഓരോ വാക്കുകളും നമ്മൾ എപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ട് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും എടുക്കുകയുമൊക്കെ ചെയ്യണം മലയാളം ഭാഷ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട് പോകാൻ ഇടവരരുത് നമ്മുടെ പൂർവ്വികരിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ വലിയ ഒരു സമ്പത്താണ് മലയാളം മലയാളത്തെ നശിപ്പിക്കുന്ന ഒരു ഭാഷകളും നമുക്ക് പക്ഷെ ഇന്ന് എല്ലാവരും ഇങ്ക്ളീഷ് പഠിപ്പിക്കുന്നത് ഇത് എല്ലാവരുടെയും കുട്ടികൾ നല്ല മികച്ച രീതീ വിദ്യാഭ്യാസം നേടണം ഇങ്ക്ളീഷ് മീഡിയങ്ങളിൽ പോയി പഠിക്കണം അതുകൊണ്ടാണ് എല്ലാവരും പിള്ളേരെ ഇംഗ്ളീഷിൽ വിടുന്നു മലയാളത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇംഗ്ളീഷ് മീഡിയത്തിൽ പക്ഷെ അങ്ങനെയല്ല മലയാളത്തിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം മലയാളമില്ലെങ്കിൽ മലയാളിയില്ല അതുപോലെയാണ് നമ്മൾ ഇപ്പം ദെ ഓണമൊക്കെ ആഘോഷിക്കുന്നു മല കേരളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം അത് നമുക്ക് മാത്രമേ ആയിട്ടേ ഉള്ളു വേറെ ആർക്കുമില്ല എന്തുകൊണ്ടാണ് നമ്മൾ മലയാളത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കേരളീയർക്ക് അങ്ങനെ മലയാളമെന്ന ഒരു ഇത് വന്ന് പദം വന്നിരിക്കുന്നതും ഇങ്ങനെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ പറ്റുന്നതും അത് കാരണം നമ്മൾ മലയാളത്തെ മറന്നു ഒരു ജീവിതം നമ്മൾക്ക് വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും മലയാളം നമ്മൾ വായിപ്പിക്കുകയും പത്രമൊക്കെ മലയാള പത്രമൊക്കെ അവരെ വായിപ്പിക്കണം നമ്മുടെ പൂർവ്വികരിൽ നിന്ന് വന്നിരിക്കുന്ന സമ്പത്ത് നമ്മളായിക്കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് ആ സമ്പത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഒരു രീതിയിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക മലയാളം പഠിക്കണം മലയാളത്തെ നല്ല മലയാളം പഠിച്ചില്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ മലയാളം എന്ന ഭാഷ ഇല്ലാതെയാവും ഇല്ലാതെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാവരും ഇപ്പം ഇംഗ്ളീഷ് പഠിക്കുകയല്ലെ അപ്പോൾ നമ്മൾ മലയാളം പഠിക്കാാൻ പറയുമ്പോൾ നമ്മടെ കുഞ്ഞുങ്ങൾക്ക് അതെന്തുവാണ് എന്നുള്ളത് അറിയത്തില്ലാതെ വരും അത് കാരണം മലയാളത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തു കൊണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ